മനുഷ്യ ജീവിതങ്ങളേയും സമാജ ബൈക്കിങ്ങ് സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനാണെങ്കിൽ ഇന്ത്യയിൽ നേരിട്ടെത്തിത്തന്നെ മറ്റു രാജ്യത്തെ വ്യക്തികൾ നേരിട്ട് എത്തിത്തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ എല്ലാ രാജ്യങ്ങളെയും വെച്ച് വേർപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയിലുള്ള ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലും ഇരുപത്തൊ പലവിധ ആചാരങ്ങളും സംസ്കാരങ്ങളും നിലനിന്നു കൊണ്ടുവരുന്നുണ്ട് അതു തന്നെ അതുകൊണ്ടുതന്നെ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ വെച്ച് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ആചാരങ്ങളുടെ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാ രാജ്യമാണ് ഇന്ത്യയിലെ ഭൂപ്രദേശമെല്ലാം വളരെ ഭംഗിയാർന്നതും അത് വളരെയധികം പറഞ്ഞ് നമുക്ക് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിലധികം ഭംഗിയായി തോന്നുന്ന ഒന്നാണ് പല സ്ഥലങ്ങളിലും പല വിധമായ ഭംഗിയിലാണ് ഭൂപ്രദേശങ്ങളെല്ലാം നിലകൊള്ളുന്നത് നോർത്ത് ഇന്ത്യ ആയാലും സൗത്ത് ഇന്ത്യ ആയാലും അതിന് അതിന്റേതായ ഭൂപ്രകൃതി ഭംഗികളെല്ലാം നിന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഭൂപ്രദേശത്തെക്കുറിച്ചറിയാൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാനും അത് അനുഭവിച്ചറിയാനും സാധിക്കും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്